മലയാള ഭാഷയെക്കുറിച്ച് സാധാരണയുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയെന്നു വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഒന്നാമതെന്നു വെച്ചാൽ കേരളത്തിൽ പതിനാലു ജില്ലകളാണ് ആകെ ഉള്ളത് ഈ പതിനാലു ജില്ലകളിൽ പതിനാലു ജില്ലകളിലും പതിനാലു രീ പതിനാലു തരത്തിലാണ് പതിനാലു സ്ലാങിലാണ് മലയാള ഭാഷ സംസാരിച്ച് കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ചില നാട്ടിൽ ചില ഭാഷകളുടെ ഒ ഒരേ അതായത് മലയാള ഭാഷയിൽ ചില നാട്ടിലെ ചില ഭാഷകളുടെ അർഥം ആയിരിക്കില്ല ചില നാട്ടിൽ അതേ വാക്കിന് മറ്റൊരർഥം ആയിരിക്കും അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ കേരളത്തിൽ തന്നെ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരേ മലയാളഭാഷ തന്നെ പല സ്ലാങ്ങുകളിൽ ഉപയോഗിച്ചിട്ട് പല രീതിയിലാണ് കേരളത്തിലെ ആൾക്കാർ അത് ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഉച്ചാരണത്തിലുള്ള വ്യത്യാസം കൊണ്ട് പല പല തെറ്റിദ്ധാരണകൾ മലയാള ഭാഷയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ശരിയായ നമ്മുടെ മലയാളഭാഷാന്ന് പറയുന്നത് ഈ പറയുന്ന സ്ലാങ്ങുകളൊന്നും അല്ല ശരിയായ മലയാളഭാഷ വേറെ തന്നെയാണ് ആ ശരിയായ മലയാള ഭാഷയിൽ സംസാരിക്കുന്ന ടൈമ് അതിൽ പ്രത്യേകിച്ച് തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒന്നുമുണ്ടാവില്ല പക്ഷേ മലയാളികൾ അത് സംസാരിക്കുന്ന സമയം ഓരോ ദേശത്തും എത്തുന്ന സമയം ആ ഭാഷയിലെ ഉച്ചാരണണത്തിൽ ചില വ്യത്യാസങ്ങൾ വരുന്നത് ആ ഉച്ചാരണത്തിലുള്ള വ്യത്യാസങ്ങളാണ് മലയാള ഭാഷയിൽ പലരീതീലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് ഇവ എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ സ്ലാങ്ങുകൾ ഒന്നുകിൽ നമ്മൾ മനസിലാക്കാൻ ശ്രമിക്കുക അവരെ സ്ലാങ്ങിൻ്റെ അതിൻ്റെ മീനിങ്ങിൻ്റെ അർഥം എന്താണെന്ന് അവർ പറയുന്നതിൻ്റെ അർഥം എന്താണെന്ന് കേൾക്കുന്നവർ മനസിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇപ്പം പറയുന്നവർ അത് മാറ്റണം മാറ്റണമെന്നില്ല അതിലും നല്ലത് കേക്കുന്നവർ അത് മനസിലാക്കാൻ ശ്രമിക്കുക അതിൻ്റെ അർഥം എന്താണെന്നു മനസിലാക്കിയി ട്ട് തെറ്റിദ്ധാരണ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്